ആ ആ ഹലോ ഇത് ആരായിരുന്നു ആ അതെ അതെ ഇതു അവൻ്റെ ടീച്ചർ ആയിരുന്നോ ഓക്കെ ടീച്ച് ആ ഹലോ ആ കേൾക്കുന്നുണ്ട് ആ ടീച്ചറേ അവൻ ക്ലാസിൽ ഒക്കെ പിന്നെ വീട്ടിൽ ഇരുന്നു പഠിപ്പിക്കാറൊക്കെ ഉണ്ട് ഞാൻ പഠിക്കാറും ഉണ്ട് അവൻ പക്ഷേ പരീക്ഷയ്ക്ക് വളരെ ഞാൻ മാർക്ക് കണ്ടായിരുന്നു വളരെ കുറവാണ് പക്ഷേ ട്യൂഷനും പോകുന്ന കൊച്ചാണേ എന്താണെന്ന് അറിയില്ല നന്നായി പഠിച്ചു കൊണ്ടിരുന്ന കൊച്ചാണ് ഇപ്പം കുറച്ചായിട്ട് ആണ് മാർക്ക് വളരെ കുറഞ്ഞു വരുന്നത്

വീട്ടിൽ വന്നിട്ട് കുറച്ച് നേരം ഞാൻ കളിക്കാൻ ഒക്കെ പറഞ്ഞു വിടും കളിച്ചോട്ടെ ചെറിയ കുട്ടികൾ അല്ലേ കളിച്ചോട്ടെ പഠിത്തം മാത്രം പറ്റിലല്ലോ പിന്നെ അത് കഴിഞ്ഞ് ഒരു ഏഴ് മണി തൊട്ട് ഏഴ് മണിക്ക് എഴുതിപ്പിക്കുക ആണെങ്കിൽ ഒരു എട്ടര ആവുമ്പോൾ ഫുഡ് കഴിക്കാൻ എഴുന്നേറ്റ് പിന്നെ കുറച്ച് നേരം ടി വി കാണും ഒരു അര മണിക്കൂർ അത് കഴിഞ്ഞ് പത്തു മണി വരെ പിന്നെയും പഠിത്തം ആണ് അവന് ഒരു ടൈംടേബിൾ പോലെ പിന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് അനുസരിച്ച് അവൻ എല്ലാ വിഷയവും കവർ ചെയ്തിട്ടാണ് ഓരോ ദിവസവും പഠിക്കാറ് ഓക്കെ ടീച്ചറേ ഞാൻ നോക്കാം ഞാൻ പഠിക്കാൻ പഠിപ്പിക്കാത്തത് അല്ല അവൻ പഠിക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല എന്തായാലും ഞാൻ പിന്നെ ഒന്നും കൂടെ കാര്യമായിട്ട് ശ്രദ്ധിക്കാം അവനെ മാത്സും പിന്നെ ഫിസിക്സ് ഒക്കെ കുറച്ച് ടഫ് ആണെന്ന് പറഞ്ഞായിരുന്നു അവൻ മാത്സ് ഒട്ടും മനസിലാവുന്നില്ല പിന്നെ എന്താണ് അവൻ പ്രോബ്ലംസ് ഒന്നും സോ സോൾവ് ചെയ്യാനുള്ള പിന്നെ മെത്തേട് ഒന്നും അവന് കിട്ടുന്നില്ല ഞാന് വീട്ടിൽ ഇരുത്തി അവനെ പഠിപ്പിക്കുന്നുണ്ട് ബാക്കിയുള്ള വിഷയങ്ങൾക്കൊന്നും കുഴപ്പം ഇല്ല മാത്സ് ആണ് അവന് കുറച്ചും കൂടി ടഫ് അപ്പം ടീച്ചർ ഒന്ന് മാത്സിൻ്റെ ടീച്ചറോട് ഒന്ന് അവനെ ശ്രദ്ധിക്കാൻ പറയുവായിരുന്നെങ്കിൽ കുഴപ്പം ഇല്ലായിരുന്നു വേറെ ഇനിയിപ്പം എന്ത് ചെയ്യാൻ ഇപ്പം വേറേ കുഴപ്പം ഒന്നും ഇല്ലല്ലോ പഠിത്തതിലും പരീക്ഷക്ക് മാർക്ക് കുറവ് അല്ലാതെ വേറെ പ്രശ്നം ഒന്നും ഇല്ലല്ലോ അവനെ കൊണ്ട് സ്കൂളിൽ ഓക്കെ ടീച്ചറേ ഞാൻ എന്തായാലും ഞാൻ ടെക്സ്റ്റ് പേപ്പറിൻ്റെ എല്ലാം പിന്നെ എക്സാമിന്റെ പേപ്പർ ഒക്കെ കണ്ടായിരുന്നു ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കൊച്ചിൻ്റെ അച്ഛനോടും സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ എന്തായാലും ഒന്നും കൂടി കാര്യമായിട്ട് നോക്കാം ഇനി അടുത്ത പരീക്ഷയ്ക്ക് ഒന്ന് ടീച്ചറും ക്ലാസ്സിൽ ഒന്ന് നോക്കിയാൽ മതി അവനെ ഒന്ന് സെറ്റ് ആക്കി എടുത്താൽ മതി അവൻ്റെ ആ പുറകിലിരിക്കുന്ന കൂട്ടുകെട്ടൊക്കെ ഒന്ന് മാറ്റി അവനെ ഒന്ന് മാറ്റി ഇരുത്തുമ്പോൾ തന്നെ അവൻ ഒന്ന് സെറ്റ് ആയിക്കോളും ഓക്കെ ടീച്ചർ താങ്ക്യൂ